ഞാൻ അങ്ങനെ വരച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒരാളെ നോക്കിട്ടാണ് കൂടുതലായിട്ടും വരച്ചിട്ടുള്ളത് പിന്നെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നു പോകുന്ന ഒരു പക്ഷേ അതായത് കടുവ അങ്ങനത്തെ രീതിയിലൊക്കെ ഞാൻ വരക്കാൻ നോക്കിട്ടുണ്ട് ഇപ്പം നമ്മൾ ടി വില് നേരിട്ടൊന്നും കടുവനെ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണേണ്ടതെന്ന് പറഞ്ഞാൽ സൂമിലൊക്കെ വെച്ചിട്ട് സൂമിലോക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ നിർത്തി നിന്ന് വരച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിലുള്ള അനുഭവം കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണിത് നമ്മൾ വരച്ചെടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകും പിന്നെ അത് വരുന്നവരെ നോക്കി നിൽക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നേന്നു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്ത വസ്തുക്കൾ കാര്യങ്ങളൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട് നല്ല സെറ്റപ്പായിട്ട് വരച്ചിട്ടുണ്ട് അപ്പം നല്ല നല്ല രീതിയിലുള്ള ചിത്രം വരയ്ക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിർജീവ വസ്തുക്കൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ അതായത് ഇപ്പം അതായത് ജീവനില്ലാത്ത വസ്തുക്കൾ അപ്പോൾ അതൊക്കെ ഞാൻ വരക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ വരക്കാൻ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷേ കാരണെന്താ വെച്ചു കഴിഞ്ഞാൽ അത് ചലിക്കാത്തൊരു വസ്തു ആണല്ലോ അപ്പോൾ അത് നല്ല രീതിയിൽ എനിക്ക് വരയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു